ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലെ പൂന്തോട്ടത്തെ നിലനിർത്താൻ ഇനി ഞാൻ ബുദ്ധിമുട്ടുന്നതെന്നു വച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടു പുറകിലായിട്ടൊരു ചാൽ ഉണ്ട് അതുകൊണ്ടുതന്നെ ആ ചാലിൽ കൊതുക് ഉള്ളതുകൊണ്ടുതന്നെ ഒരുപാട് കൊതുകുകളുണ്ട് സ്മെല്ലൊക്കെ വരുന്നൊരു ചാലാണ് അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഓരോ പൂക്കളുടെ ഇടയിലും അതുപോലെ ഓരോ മുറ്റത്തിറങ്ങിയാൽ ഫുൾ കൊതുകാണ് ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മൾ പൂക്കളും നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നന്ന ഭയങ്കര കൊതുകാണ് അതുപോലെ തന്നെ കീടങ്ങളും അതിൻ്റെ ഇലകളിലും അതിൻ്റെ അടി ഇലയുടെ അടിഭാഗത്തൊക്കെ ഓരോരോ പുഴുവിനെ പുഴുവിനെപ്പോലെ പുഴു പോയൊരു ഇതും അതുപോലെ പാറ്റയും അതുപോലെ ഇങ്ങനെ ചെറിയ കീടങ്ങളൊക്കെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നശിക്കാറൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളമൊക്കെയിട്ട് വളം എന്നു വച്ചാൽ ജൈവ വളമൊക്കെയിട്ട് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് നല്ല ബുദ്ധിമുട്ടാണ് പരിപാലിച്ച് കൊണ്ടുവരാൻ